നമ്മുടെ ഉദയഗിരി പ്രദേശത്തിൻ്റെ ഉദയഗിരി പുഷ്പ്പഗിരി അതുപോലെ തന്നെ ചെമ്പോപ്പാറ പ്രകാശ്ശ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളില് ഈ ഭവനങ്ങള് ഉണ്ട് അതുപോലെത്തന്നെ അനേകം വിദ്യാർത്ഥികള് പുറത്തുനിന്ന് വന്ന പ്രത്യേകിച്ച് ഈ അമലഗിരി ഈ ജെങ്ഷനിലുള്ള ഒരു ഇൻറ്റർനാഷണൽ സ്കൂളുണ്ട് ഡീപ്പോളിൻ്റെ അവിടെ അന്യസംസ്ഥാനത്ത് നിന്നൊക്കെ അനേകം മക്കള് അനേകം കുഞ്ഞുങ്ങള് വന്ന് പഠിക്കുന്നുണ്ട് അവിടെ നല്ല ഫീസ് കൊടുത്ത് വേണം അപ്പോള് അവർക്കെല്ലാവക സൗകര്യങ്ങളും അവിടെ നിന്ന് കൊടുക്കുന്നുണ്ട് അതുപോലെത്തന്നെ കേരളത്തിൻ്റെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവര് ഇവിടെ വന്ന് എടുത്ത് ദിവസവാടകയ്ക്കും മാസവാടകയ്ക്കും എടുത്ത് താമസിക്കുന്നവരുണ്ട് താമസിച്ചുകൊണ്ട് ഈ ടൂറിസ്റ്റ് മേഖല കാണാനായിട്ടൊക്കെ അവരിങ്ങനെ വന്ന് ദിവസങ്ങളോളം വന്നിങ്ങനെ കിടക്കുന്നു ഇപ്പം ഈ പ്രദേശമെന്ന് പറയുമ്പോഴേക്കും ടൂറിസ്റ്റിൻ്റെ ഒരു മേഖലയായിട്ട് മാറുന്നുണ്ട് അനേകമാൾക്കാര് കേരളത്തിൻ്റെ പടിഞ്ഞാറന് സ്ഥലങ്ങളില് നിന്നൊക്കെ തെക്ക് സൈഡില് നിന്നും വടക്ക് സൈഡില് നിന്നൊക്കെ വന്ന് ഇടുക്കി എന്നിട്ട് ഈ പ്രദേശത്ത് കടന്നുവരുന്നുണ്ട് ഇവിടെ വന്ന് താമസിച്ച് ഈ പ്രകൃതിയൊക്കെ കണ്ട് മനോഹാരിത അതുപോലെത്തന്നെ ഇവിടെ വന്ന് താമസിക്കുമ്പോള് ഈ മുറി വാടകയ്ക്കെടുക്കുമ്പോള് സ്ക്വയർ ഫീറ്റ് ആയിട്ടുമൊക്കെയായിട്ട് ഇത്ര രൂപയെന്നാണ് പറയുന്നത് അതായത് സ്ക്വയർ ഫീറ്റിനുള്ള അതിൻ്റെ സൗകര്യങ്ങളോടുകൂടി ഉള്ള തുകയാണ് പറയുന്നത് അതുപോലെ തന്നെ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെയാണെങ്കില് അങ്ങനെ മുഴുവനായിട്ടുള്ളതെടുക്കുന്നുണ്ട് കൂട്ടമായിട്ട് കുടുംബങ്ങളായിട്ട് വരുന്നവരുണ്ട് പല ഭാഗത്തുനിന്നും ആൾക്കാരൊന്നിച്ചുകൂടി കൂട്ടുകാരുമായിട്ട് വന്ന് അതുപോലെ ടൂറിസ്റ്റ് മേഖലയിൽ വന്ന് താമസിക്കുന്നുണ്ട് അവര് ഭക്ഷണവും കാര്യങ്ങളുമൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കിക്കഴിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ഇപ്പം മറ്റിടത്തുനിന്നും ബുക്ക് ചെയ്ത് കൊണ്ടുവന്ന് ഭക്ഷണം കഴിക്കുക അങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ അവരിവിടെ താമസിച്ചുകൊണ്ട് തന്നെ പിന്നെ എസ്റ്റേറ്റ് പ്രവണതകളുണ്ടോയെന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഈ പ്രദേശങ്ങളില് എസ്റ്റേറ്റുകളുണ്ട് അതായത് നാണ്യവിളകളുടെയൊരു മേഖലയായിട്ടെന്ന് പറയുമ്പോള് ഏലം എസ്റ്റേറ്റുകള് ഏലക്കാടുകള് അതുപോലെ തന്നെ തേയിലകൃഷിയുണ്ട് അത് എസ്റ്റേറ്റ് നമ്മുടെ കൃഷിക്കാരായതുകൊണ്ടാണ് എസ്റ്റേറ്റ് മേഖലയുണ്ടോയെന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഉണ്ട് ഇവിടെ നിന്നങ്ങോട്ട് മാറിയാല് കുട്ടിക്കാനമുണ്ട് ഏലപ്പാറയുണ്ട് അങ്ങനെ ആ പ്രദേശങ്ങളൊക്കെ എസ്റ്റേറ്റ് മേഖലയാണ് ഉള്ള തൊഴിലാളികള് പണിയെടുക്കുന്നുണ്ട് ചില എസ്റ്റേറ്റുകളൊക്കെ പൂട്ടിക്കിടക്കുന്നു അവിടെ പണിയൊന്നും നടത്തുന്നില്ല മുതലാളിമാര് തൊഴിൽ ഒന്നും ലഭ്യമാകുന്നില്ല അതുപോലെ തന്നെ ഈ എസ്റ്റേറ്റ് പ്രവണതയെന്ന് പറയുമ്പോഴേക്ക് അവര് പിന്നെ അവരൊരു ദിവസം പണിയെടുക്കുമ്പോള് ഈ യൂണിയൻകാരായിരിക്കും എസ്റ്റേറ്റ് മേഖലയിൽ പണിയെടുക്കുന്നവര് തേയില എസ്റ്റേറ്റിലും അതുപോലെ തന്നെ ഏലപ്പാറ എസ്റ്റേറ്റിലുമൊക്കെ പണിയെടുക്കുന്നവര് യൂണിയൻ മേഖലയിലുള്ളവരാണ് അവരുടെ വീടെന്ന് പറയുമ്പോള്ത്തന്നെ എസ്റ്റേറ്റ് അതിൽത്തന്നെ വീടൊക്കെ പണിത് ആ എസ്റ്റേറ്റ് ഇൻ്റെ ചെലവില്ത്തന്നെ വീടുകള് പണിതുകൊടുക്കുകയാണ് അവിടെ താമസിക്കുകയൊക്കെ ചെയ്യുന്നത് വീട് വാടകയ്ക്കെടുത്ത് പണിയെടുക്കുന്നവരുണ്ടോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഉണ്ട് അത് പല മേഖലയിലും ഇവിടെ പല വിദ്യാഭ്യാസത്തിനായി വരുന്നവരുണ്ട് അതുകൊണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനെന്ന് പറയുമ്പോഴേക്ക് പുറത്തുനിന്നാണ് ഇപ്പം പേരുള്ള ഇൻറ്റർനാഷണൽ സ്കൂളിന് പുറത്തുനിന്നനേകം അന്യസംസ്ഥാനങ്ങളില് നിന്ന് ഒത്തിരി കുട്ടികള് വന്ന് പഠിക്കുന്നുണ്ട് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് വിദ്യാഭ്യാസം കൊടുക്കുമ്പോള് ഒരു കുട്ടിക്കെന്ന് പറയുമ്പോഴേക്കും ഏതാണ്ടൊരു ഒരു വർഷത്തിന് മൂന്ന് ലക്ഷം രൂപ തൊട്ട് മുകളിലോട്ടുള്ള തുകയുണ്ടെന്നുള്ളത് വ്യക്തമാണ് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളൊക്കെ പിള്ളാരൊക്കെ നന്നായിട്ട് പഠിക്കുന്നുണ്ട് ഈ കാലയളവിൽ ഈ മുന്നോട്ടുള്ള കാലഘട്ടങ്ങളില് നന്നായിട്ട് പിള്ളാര് പഠിക്കുവാനും പഠിപ്പിക്കുവാനുമൊക്കെ മാതാപിതാക്കന്മാര് വളരെ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളത് വ്യക്തമാണ് അല്ല പലരും ചോദിക്കുന്നുണ്ട് കുട്ടികളൊക്കെ ഇഷ്ടംപോലയുണ്ടോ ഈ പ്രദേശത്തൊക്കെ ഇവിടെ വന്നുനിന്ന് പഠിക്കാനെന്ന് ചോദിക്കുന്നുണ്ട് ഞങ്ങള് പറയും നല്ല വിദ്യാഭ്യാസമാണ് അവർക്ക് കൊടുക്കുന്നത് കുട്ടികള് പഠിക്കുന്നുണ്ട് അത് തുടങ്ങിയിട്ട് തന്നെ എട്ടൊമ്പത് വർഷത്തോളമാകുന്നു അങ്ങനെ ഈ കാലയളവില് നാട് അവരെ പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അന്യ സംസ്ഥാനത്ത് നിന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുഞ്ഞുങ്ങളിവിടെ വന്ന് പഠിക്കുന്നുണ്ടെന്നുള്ളത് വ്യക്തമാണ്